അപ്പോൾ നമ്മുടെ കുടുംബത്തില് ആർക്കെങ്കിലും സുഖയില്ലാണ്ടായിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമ്മള് കൊടുക്കുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പം ചിക്കൻപോക്സ് അങ്ങനെ എന്തേലും വന്ന് കഴിഞ്ഞാല് മാത്രം നമ്മള് ചുട്ട പപ്പടവും കഞ്ഞിയും മാത്രം അങ്ങനെ കൊടുക്കു ഉള്ളൂ ഉപ്പ് ഇട്ടതോ അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല എന്നാണ് പറയാറ് കാരണം എന്താന്നു വെച്ചാല് ഉപ്പ് ഇട്ടതൊക്കെ കുടിച്ചാല് കഴിച്ച് കഴിഞ്ഞാല് അത് വല്ലാണ്ട് കൂടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതൊണങ്ങാനൊക്കെ ഭയങ്കര പാടായിരിക്കും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചിക്കൻബോക്സും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് ഇപ്പം ചൂടും എനി അഞ്ചാം പനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് അങ്ങനെയാണ് കൊടുക്കാറ് പിന്ന പനിയോ സാധാ പനിയോ അങ്ങനെ എന്തേലുമൊക്കെ വന്നു കഴിഞ്ഞാല് കൂടുതലായിട്ടും കൊടുക്കാറുള്ളതെന്ന് പറഞ്ഞാൽ കഞ്ഞിയും ചമ്മന്തിയും അങ്ങനത്തെ പപ്പടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും കൊടുക്കാറ് നമ്മള് മറ്റതൊന്നും വലിയ രുചിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണെന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വായിക്കൊക്കെ നല്ല രീതിയില് കൈപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഇത് കഴിക്കുന്ന കൊണ്ട് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നു ഇല്ല നല്ല എന്താ പറയുക ആരോഗ്യപരമായിട്ടുള്ള ഓർ ഭക്ഷണം കാര്യങ്ങളൊക്കെയാണ് കഞ്ഞിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പോൾ അതൊക്കെയാണ് നമ്മളു കൂടുതലായിട്ട് ഉണ്ടാക്കി കൊടുക്കാറുള്ളത് എന്ന് വേണെങ്കിൽ പറയാം